വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകളും ലാപ്ടോപ്പുകളും നൽകുന്നത് നൽക്കുന്നതു പോലെയുള്ള സംഭവങ്ങൾ സംരംഭങ്ങൾ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക തന്നെ ആണ് ചെറുതായാലും വലുതായാലും നമ്മുടെ ഓരോ സാധനങ്ങൾ വിദ്യാർത്ഥികൾക്കു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മെച്ചങ്ങൾ അവരതിൽ കാണും കാരണം നല്ല വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും തിരഞ്ഞെടുത്ത് പഠനത്തിൻ്റെ പേരിൽ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഇനിയും നമുക്കു വേണം എന്നുള്ളൊരു ചിന്ത വരും അപ്പം പിന്നെ അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും അതു കൂടുതൽ മെച്ചം തന്നെയാണ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഈ സംരംഭങ്ങൾ നല്ലതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കു നല്ല ഉന്മേഷം വരും പഠനത്തിൻ്റെ കാര്യത്തിലായാലും പഠനത്തിന് പിന്നോട്ടു നിൽക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് ഇങ്ങനെയുള്ള സൈക്കിളുകളും ലാപ്ടോപ്പുകളും അതു മാത്രമല്ല വേറെ എന്ത് സാധനം കൊടുക്കുന്ന സംരംഭമായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതു നല്ലതു തന്നെയാണ് അത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അങ്ങനെ കൊടുത്താൽ നല്ല മാറ്റങ്ങൾ ലഭിക്കും അതു തന്നെ സൈക്കിൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രം ആകണമെന്നില്ല ഒരു ചെറിയ പേന അല്ലെങ്കിൽ പെൻസിൽ അതു വരെയും കൊടുത്താൽ കുട്ടികൾക്കു നല്ല ഉന്മേഷം പഠനകാര്യത്തിൽ നല്ല ഉന്മേഷവും ഇതു തോന്നും അങ്ങനത്തെ സംരംഭങ്ങൾ ഇനിയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മുന്നോട്ടു കൊണ്ടു വരുമ്പോഴാണ് കുട്ടികൾക്കും തന്നെ പഠനകാര്യത്തിൽ മുന്നോട്ടു വരാൻ താൽപര്യം കൂടുതലും അവർക്കു തോന്നി തുടങ്ങും പിന്നോട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്കും അതിന് മുന്നോട്ടു വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള സംരംഭങ്ങൾ ഇനിയും വേണം ഓരോ ഓ പാട്ടിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഒരു ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതു കൂടുതലും പ്രചോദനം തന്നെയാണ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം